ഇപ്പോൾ നിങ്ങളെ കുട്ടികൾന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പ്രവേശനത്തിന് ഇപ്പോൾ ഒന്നാം ക്ലാസിലൊക്കെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഫീസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മളവരുടെ പി ടി എ ഫണ്ട് ഇപ്പോൾ ഗവൺമെൻ്റ് സ്കൂളിലൊക്കെയാണെങ്കിൽ നമ്മൾക്ക് പി ടി എ ഫണ്ടും പിന്നെ സ്കൂളിൽ ചെറിയതായിട്ട് ഫീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇപ്പോൾ പി ടി എ ഫണ്ടെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ പത്തിരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെയെ ഉള്ളൂ ചെറിയ ഒന്നാം ക്ലാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ അതായതിപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിലൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫീസും കാര്യങ്ങളൊക്കെ വരും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണേഷനും ഇപ്പോൾ അല്ലാത്ത ഫീസും കാര്യങ്ങളൊക്കെ